വയനാട് ജില്ലയിലെ ജനപ്രിയ പ്രാദേശിക കായികം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മുളം കാടുകളുണ്ട് വയനാട് ഹെറി ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട് നീന്തൽ കുളമുണ്ട് അതുപോലെ ടർഫുകളുണ്ട് പിന്നെ ക്ലബ്ബുകൾ പബ്ബുകൾ പിന്നെ ഇപ്പോൾ ഇപ്പോൾ രാവിലെ ഒക്കെ കുട്ടികൾക്ക് ഒക്കെ അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ കളിയ്ക്കാൻ വേണ്ടിട്ടു ഗ്രൗണ്ടുകൾ ഗ്രൗണ്ടുകളിൽ ഫുട്ബോളും ക്രിക്കറ്റ് ഒക്കെ കളിയ്ക്കാൻ വേണ്ടി കൂടുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഒന്ന് ഒത്തുകൂടി ഒരുമിച്ച് ഇരുന്ന് സംസാരിച്ച് കളി കായിക മേഖലയിൽ ഏർപ്പെട് എടാ എടാനും അവിടെ പിന്നെ സമയം ചിലവഴിക്കാനും ഒക്കെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് മേ മേഖലകളുണ്ട് ഇപ്പോൾ നമ്മുടെ വിനോദ പ്രവർത്തനങ്ങളായ ഇപ്പോൾ വയനാട് ജില്ലയിൽ ഒരുപാട് സ്ഥാനങ്ങളുണ്ട് നമുക്ക് പോകാനും സഞ്ചരിക്കാനും കാണാനും ഡാമുകളും അതുപോലെ കുറുവ ദ്വീപ് മലകളും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വയനാട്ടിൽ കാണാൻ ഓൾ വയനാട് ആയിട്ട് കാണാൻ സൂചിപ്പാറ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോവുക കുടുംബങ്ങളും കൂട്ടുകാരും ഒത്ത് ഒരുമിച്ച് ഇര് ഒരുമിച്ച് ചിലവഴിക്കുക അതുപോലെ ക്ലബ്ബ്കളിൽ കൂടുക ക്ലബ്ബുകളിൽ ഇപ്പോൾ ഓണപരിപാടി ആണെങ്കിലും അതുപോലുള്ള പരിപാടികൾ ഒക്കെ വരുമ്പോൾ ഒരുമിച്ചുക്കൂടി ഓരോ ഓണത്തിനായുള്ള ഒരുപാട് കളികളുണ്ട് ഇപ്പോൾ സുന്ദരിക്ക് പൊട്ട് തൊടുക കുപ്പിയിൽ വെള്ളം നിറക്കുക കസേരക്കളി അങ്ങനെ ഉള്ള ഒരുപാട് കളികളും ഒത്ത് ക്ലബ്ബുകളിൽ അതുപോലെ മ്യൂസിയത്തിൽ പോവുക പിന്നെ ലൈബ്രറിയിൽ പോവുക കൂട്ടുകാരുമൊത്ത് ലൈബ്രറിയിൽ പോയി പിന്നെ ടൈം സ്പെൻഡ് ചെയ്യുക അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ട്